ഞാൻ തിരുവനന്തപുരത്തിൽ ഉണ്ടാകുമ്പോൾ തിരുവനന്തപുരത്തു പോയിട്ട് ആട നല്ല നല്ല ഇതുള്ള സ്ഥലം തിരുവനന്തപുരം തിരുവനന്തപുരത്ത് കവടിയാർ കവടിയാർ രാജ കൊട്ടാരം ആണ് അതിലുണ്ടായിരുന്നത് കവടിയാർ രാജകൊട്ടാരത്തിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആട ഇത് ഓലക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ടു പോയിട്ട് ഞങ്ങൾ ഇവിടെയെല്ലാം പോകാനെല്ലാ സുഖ സുഖവും എന്തേ ഇതുണ്ട് എന്ത് ടൂറിസ്റ്റ് ഏരിയ ഉണ്ട് ടൂറിസ്റ്റ് ഏരിയയിൽ പോയിട്ട് ആടെ ചുറ്റാൻ വേണ്ടിയിട്ട് ഡാം എന്നു പറഞ്ഞാൽ ഞങ്ങളുടെ ഇതു പറഞ്ഞാൽ ടൂറിസ്റ്റ് ഏരിയയിൽ പിന്നെ പാലക്കാട് പാലക്കാടിൽ നെല്ലിയാമ്പതി ഡാം നെല്ലിയാമ്പതി ഡാമിൽ പോയിട്ട് കാണണാണ് എന്തൊരു സുഖവും നല്ല സ്ഥലമാണ് നെല്ലിയാമ്പതി പിന്നെ നെല്ലിയാമ്പതിയിൽ കാണാൻ വലിയ മോഹമാണ് പോയിട്ടു നിന്നാൽ ഇടി പാലക്കാട് ടൗൺ തന്നെ കാണാം നെല്ലിയാമ്പതി കുന്നിൻ്റെ മുകളിൽ പോയിട്ട് കാണാൻ ആടെ പിന്നെ പാലക്കാടിൽ ഭയങ്കരമായിട്ടു പറഞ്ഞാൽ പാലക്കാട് ടൗണിൽ ഭയങ്കര ചൂട് കൊണ്ട് ഇരിക്കാൻ പറ്റില്ല നല്ല നല്ല ഡിഗ്രി ചൂടായിരിക്കും ഈ ഈ മുപ്പത്തഞ്ച് നാൽപ്പതോളം ഡിഗ്രി ചൂട് ഈ നെല്ലിയാമ്പതി പറഞ്ഞെങ്കിലും പാലക്കാട് ജില്ലയിലെന്ന നെല്ലിയാമ്പതി പറഞ്ഞ സ്ഥലത്ത് ആട പോയാൽ നല്ല തണുപ്പുള്ള സ്ഥലം നല്ല ഏ സിയുള്ള സ്ഥലം നല്ല മഞ്ഞുള്ള സ്ഥലം കാണാൻ നല്ല ഇത് ഭംഗി ആട പാലക്കാട ആ കുന്നിനു മോള്ള് നിന്നാൽ ഇടി പാലക്കാടിൻ്റെ ടൗൺ ഇടി കാണാം പിനനെ ആടെ സൈലൻറ്റ് വാല്യൂ മണ്ണാർക്കാട് മണ്ണാർക്കാടിൽ നല്ല സൈലൻറ് വാല്യൂ എന്നു പറഞ്ഞാൽ ആടെ ആ കാടിൻ്റെ ഉള്ളിൽ പോയാൽ ഒരു പക്ഷികൾ പക്ഷികൾ പോയിട്ട് ഒരു കൂറ്റ്കൾ ഇല്ലാത്ത ഒരു സ്ഥലത്താണ് അല്ലേ ആടെ പോകുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം റുപ്പിയ ഉള്ള വണ്ടി ചാർജ് ഒരു ഫാമിലി പോകുന്നുണ്ടെങ്കിൽ ഒരു അവരെല്ലാം വണ്ടിയിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഫുള്ള് ചുറ്റിയിട്ട് കൊണ്ടു വരും കൊണ്ടു വരും അതാണ് പിന്നെ ഒരു ചിറ്റൂരെന്നു പറഞ്ഞ ഒരു സ്ഥലമുണ്ട് ചിറ്റൂരിൽ ഈ കള്ള് കള്ളില്ലേ കള്ള് അതിൻ്റെ സ്ഥല ആടെ കള്ള് ഓര് ആടെ ഈ പ്ലാ ഈൻ്റെ തെങ്ങിൻ്റെ മുകളിൽ കള്ള് ഇതെയ്ത് നാട്ടുകാർ വന്നിട്ട് ആടെ കള്ളെല്ലാം എടുക്കും എടുക്കും എടുത്തിട്ട് എല്ലാ നാട്ടിലേക്ക് എത്തിക്കും പിന്നെ മലമ്പുഴ ഡാം ഡാം എന്നു പറഞ്ഞാൽ കാണാനുള്ള നല്ല സ്ഥലമാണ് ആടേ ഡാമുകൾ അഞ്ചാറെണ്ണം ഡാമുണ്ട് നല്ല ഡാമുകൾ ആ മഹേല് മലമ്പുഴ ഡാമെന്നു പറഞ്ഞാൽ നല്ല കാണാൻ ഒരു നല്ല സ്ഥലാ ഓറ് ഈ ഒക്ടോബർ മാസം നവംബർ മാസം ഡിസംബർ മാസത്തിൽ ഈ ഡാമിലെ കെനാലിൽ വെള്ളം അളക്കും വെള്ളം അളക്കുമ്പോൾ ഈ കൃഷികൾക്ക് നല്ല ഉള്ള സ്ഥലമോ നല്ല കൃഷിക്കാർക്ക് ആ സമയത്തു കൃഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഡാമിലുള്ള വെള്ളമെല്ലാം വരും വന്നിട്ടാകുമ്പോൾ എല്ലാ അതിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടു കൃഷീൻ്റെ ഏർപ്പാടിൽ നല്ല ഇതിൽ ഓർ ചെയ്യും അതല്ലാതെ പിന്നെ ഞാനിപ്പോഴെന്നു പറഞ്ഞാൽ ബോംബെയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ബോംബെൻ്റെ എൻ്റെ പെങ്ങളുടെ വീട് ആടെ ആട നല്ല ബോംബയാണ് നല്ല ബോംബെയിൽ ആടെ എടി ചുറ്റാൻ പോയിട്ടുണ്ടായിരുന്നു എടീ ആടെ കാണാനുള്ള കടലിൻ്റെ സൈഡെല്ലാം കാണാൻ എന്തൊരു സുഖ പിന്നെ താജ് ഹോട്ടൽ താജ് അതുമല്ല കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം പിന്നെ മുള്ളുണ്ട് പിറന്ന സ്ഥലം മുള്ളുണ്ട് പിറന്ന സ്ഥലം എൻ്റെ പെങ്ങളുടെ വീട് നാ വീടുള്ള സ്ഥലമാണ് അതു നല്ല ഓട്ടം നല്ല ബോംബെയിൽ ചുറ്റാനായിട്ടു ഞങ്ങൾ ട്രെയിനിലായിട്ട് ട്രെയിനിൽ പോകും ട്രെയിനിൽ പോയിട്ട് ആടെയെല്ലാം ചുറ്റിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വരും ട്രെയിനിൽ ട്രെയിനിൽ ഞങ്ങൾക്കു ട്രെയിനിൽ ചുറ്റാൻ എന്തോ ഒരു സുഖമാണെന്നു പറഞ്ഞാൽ ട്രെയിനിൽ പോകുമ്പോൾ ഒരു യാത്ര ഒരു പതിനഞ്ച് മണിക്കൂറോളം ഞങ്ങൾ ട്രെയിനിൽ ഇരിക്കേണ്ടിവരുന്നു ബോംബെയ്ക്ക് പോകുമ്പോൾ അപ്പോൾ നല്ല കാണാൻ നല്ല സ്ഥലം അതല്ലാതെ ഞങ്ങളുടെ തിരുപ്പതി തിരുപ്പതി ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രം ചേർന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിട്ട് ചെലപ്പോൾ പോയിട്ടുണ്ടായിരുന്നു തിരുപ്പതി പറഞ്ഞാൽ ഈ ഹൈദർബാദ് ജാഗിൽ ആടെ പോയിട്ടു ഞങ്ങൾ ഒരു ദിവസം നിന്നിട്ടു വന്നതാണ് ആടെ നല്ല ലഡ്ഡു പ്രസാദം എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നത് തിരുപ്പതീക്ക് അതിനുശേഷം ഞങ്ങൾ മൈസൂർ മൈസൂർ ഞങ്ങൾ ഫാമിലിയൊക്കെ കാറിൽ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ടു ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കാറിൽ പോയിട്ടു നല്ല സുഖത്തോടെ റൂമെല്ലാം എടുത്തു ആട രാജൻ്റെ രാജൻ്റെ കൊട്ടാരം പിന്നെ പിന്നെ ഇതു വെള്ളത്തിൻ്റെ ചാട്ടവും വെള്ളച്ചാട്ടവും അതെല്ലാം ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടവും പിന്നെ രാജകൊട്ടാരവും പിന്നെ ആ ഞങ്ങൾ ചാമുണ്ടേശ്വരം ബെട്ടയുണ്ട് ചാമുണ്ഡേശ്വര ബെട്ട പറഞ്ഞ സ്ഥലമുണ്ട് ഇതു കുന്ന് ചാമുണ്ഡേശ്വര കുന്ന് ആടെ പോയി പോയിട്ടു ആത് ആളെ കണ്ടു പിന്നെ ആട്ന്ന് ഞങ്ങൾ തലക്കാവേരി തലക്കാവേരി എന്നു പറഞ്ഞ കാര്യമായ സ്ഥലാ തലക്കാവേരിയിൽ പറഞ്ഞാൽ വെള്ളച്ചാട്ടമുണ്ട് വെള്ളച്ചാട്ടം ആ മോളിൽ മോളിൽ ഊറ്റുന്ന സീനറി കാണാനെല്ലാം സുഖാ കാണാൻ നല്ല അടിപൊളി പിന്നെ പിന്നെ വേറെയെന്നുണ്ടെങ്കിൽ കാസർഗോഡ് കാസർഗോഡ് പറ്റിയ കാസർഗോഡ് ഈടെ കാണാൻ ഞങ്ങളുടെ ഇത് മാലിക്കു ദീനാർ പള്ളിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് മാലിക് ദീനാർ പള്ളിയിലും കാണാൻ നല്ല ഇത് സ്ഥലാ ഇട്ന്ന് ഞങ്ങളുടെ നാട്ടിൽ ഈടാനുള്ളത് പിന്നെ അതല്ലാതെ ഊപ്പാപ്പ അതിൻ്റെ പള്ളീണ്ടിട അതു കാണാൻ നല്ലോരു ഇതുണ്ട് പിന്നെ ഈട തൊക്കൂട്ടിൽ ഉള്ളവ് ഉള്ള അളവ്തു ഉള്ളതിൽ ഒരു പള്ളിയിൽ ഉള്ളതിൽ പള്ളിയുണ്ട് അതു കാണാൻ പിന്നെ ഈടെന്ന് മധൂർ ക്ഷേത്രം മധൂർ ക്ഷേത്രമെന്നു പറഞ്ഞാൽ ഈടന്ന് കാസർഗോഡ് ടൗണിൽ നിന്ന് ഒരു ആറ് ഏഴ് കിലോ മീറ്ററുണ്ട് ഏഴു കിലോ മീറ്റർമ്മ ആടെന്ന് കാണാൻ പോകാൻ നല്ല അമ്പലത്തിൽ കാണാനും പിന്നെ ഉച്ച ഉച്ചയ്ക്ക് പോയാൽ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാം നല്ല രീതിയിൽ വന്നിട്ട് നല്ല ചെയ്യുക അതല്ലാതെ ആടെന്ന് ആടെന്ന് കുറച്ചു ദൂരെയുള്ളത് അനന്തം അനന്തപത്മനാഭ ക്ഷേത്രം അനന്തപത്മനാഭ ക്ഷേത്രമെന്നു പറഞ്ഞാൽ മധൂറിൽ നിന്ന് ഒരു ആറു കിലോ മീറ്ററുണ്ട് അനന്തപത്മനാഭ ക്ഷേത്രം പോയാൽ ആട മുതല പൂജാമ്പ മുതല വരുന്നു വന്നിട്ട് അതിൻ്റെ പ്രസാദം വന്നിട്ട് തിന്നിട്ട് ആ മുതല പോകും അതിപ്പോൾ കാണാൻ നല്ല സുഖ നല്ല വെള്ളത്തിൻ്റെ വെള്ള കെട്ടിയ സ്ഥലത്തിൻ്റെ നടുവിലൊരു ഇത് അമ്പലം ആ അമ്പലത്തിൽ ആട് എത്രയോ മീനുകളുണ്ട് ആ മീനുകൾക്ക് ഇത് എന്താ പൂഴികൾ ഇടാൻ കിട്ടുമ്പോൾ ആ മീനുകളെല്ലാം കാണാൻ എത്രയോ മീനുകൾ കാണാൻ എന്തൊരു സുഖാ അതേപോലെ ഈട്ന്ന് ഈടുത്ത അനന്തപത്മനാഭ ക്ഷേത്രത്തിൻ്റെ ഇത് ആ മെയിൻ അമ്പലവീടുണ്ട് എടേ തിരുവനന്തപുരം തിരുവനന്തപുരമോ അങ്ങനെ കാണാൻ നല്ല സുഖാ പോകാൻ കണ്ടിട്ട് കണ്ടിട്ട് അതിനെ ഇതു ചെയ്യാൻ എന്തൊരു സുഖാ അത് അത് അനന്തപത്മനാഭ ക്ഷേത്രം കോവള കോവള ബീച്ചുണ്ട് കോവള ബീച്ച് കാണാൻ നല്ല സുഖാ ഒരു സൈഡ് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കോവള ബീച്ച് നല്ലതാണ് തിരുവനന്തപുരത്ത് പിന്നെ കൊച്ചു വേലി കൊച്ചു വേലി വേല വേല വേലിയിൽ ആട ഒരു ചർച്ചുണ്ട് കൊച്ചു വേലിയിൽ വേലിയിൽ ചർച്ചുണ്ട് അത് ചർച്ച് കാണാൻ പോകുക കടലിൻ്റെ സൈഡിൽ തന്നെയുള്ളത് കാണാൻ നല്ല സുഖമുണ്ട് അതിൽ അടിപൊളി ഇതു പിന്നെ ആടെ ഒരു പള്ളിയുണ്ട് മുസ്ലിംസ് പള്ളി അതു കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് ആടെ എല്ലാ കൊല്ലവും ഇത് ഇതിനു പോയാൽ ആടെ ഞങ്ങൾ പോയാൽ നല്ല പോകുന്നുണ്ട് സാധാരണ പോയിട്ട് ആടെ വരാനുണ്ട് പിന്നെ കാസർഗോഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് നല്ല നാടാണ് കാണാനും നല്ലൊരു അടിപൊളി സ്ഥലമാണ് ആണ് ഇപ്പോൾ ഞാനെത്രയോ പ്രാവശ്യമായി ഇപ്പോൾ വണ്ടിയെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റാൻ പോകുന്നുണ്ട് ഇപ്പോൾ മല്ല ടെമ്പിൾ മല്ലത്തിൽ മല്ല അമ്പലത്തിൽ പോകുന്നുണ്ട് പിന്നെ മല്ലത്ത് അമ്പലത്തിൽ ഞാൻ ഏകദേശം പോയിട്ടാട രാത്രിയൊക്കെ പോയിട്ട് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് വരാറുണ്ട് നല്ല അമ്പ നല്ല അമ്പലമാണ് മല്ലത്ത് അങ്ങനെ മധൂർ ക്ഷേത്രവും നല്ല ക്ഷേത്രമാണ് അവിടെ നിന്നു പിന്നെ വേറൊന്നു പറഞ്ഞാൽ

ഞങ്ങൾ ഇങ്ങനെ ഞാൻ പോകാത്ത നാട് എന്തിലും ഞാൻ കാറെടുത്തു കുന്താപ്പുറ കുന്താപ്പുറ പോകും കുന്താപ്പുരത്ത് എൻ്റെ ഭാര്യേൻ്റെ വീടാണ് ആടെ പോയിട്ട് കുന്താപ്പുറ സാധാരണ ഞാൻ കുന്താപ്പുറ കാറിൽ പോയിട്ട് വരും കുന്താപ്പുറ പോയിട്ട് ആടെ അമ്മേൻ്റെ വീട്ടിൽ ഓള അമ്മൻ്റെ വീട്ടിൽ സ്ഥലത്ത് നിന്നിട്ടു എല്ലാ ഇതു ചെയ്യും ഏത് ആടെ വേണ്ട പണിയെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ പിറ്റേന്നു തിരിച്ചു വരും ആടെ ആട്ന്ന് ആട്ന്ന് കൊടുത്ത ആടന്നൊരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമുണ്ട് ആടെ പോകും ആടെ ആടെ പോയിട്ടു ആടെ താമസിച്ചു വരും എൻ്റെ സു എൻ്റെ തിരുവനന്തപുരത്തു നിന്ന് ഫ്രാ ഫ്രണ്ട്സ് അത് എൻ്റെ ഒരു സാറുണ്ട് അയാൾ വരുമ്പോഴും ആടെ ഏകദേശം ഞാനൊന്ന് അങ്ങോട്ടു പോകും പോയിട്ട് ആടെ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിട്ട് എല്ലാ കണ്ടിട്ട് ആട്ന്ന് ഈട ഈട ഞങ്ങൾ കൊല്ലൂരിൽ നിന്നു നേരെ മൂകാംബിക മൂകാംബികയിൽ നിന്ന് അല്ല മൂകാംബികയിൽ നിന്ന് ഈട മുരുഡേശ്വർ മുരുഡേശ്വർ കാണാനുള്ള നല്ല സ്ഥലാ ആ മുരുഡേശ്വർ ശിവൻ്റെ ആ ഇതുള്ള മൂർത്തിയുള്ള കടലിൻ്റെ നടുവിലുള്ള ആ ജാഗക്കെല്ലാം പോയിട്ടു കണ്ടിട്ടെല്ലാം വരും ആ കണ്ടിട്ടെല്ലാം വന്നിട്ട് ആട താമസിക്കാനെല്ലാം നല്ല സൗകര്യ കടൽ കളിച്ചിട്ടു കുളിക്കാനും കുടിക്കാനും എല്ലാ നല്ല സ്ഥലമുള്ള ജാഗയാണ് അങ്ങനെ ഉളളതു പിന്നെ കാറിന് ഞാൻ നേരെ ഇങ്ങോട്ടു വരുമ്പോൾ വന്നിട്ട് വരുമ്പോൾ ഈടെ ഉടുപ്പിയിൽ ഉടുപ്പിയിൽ ശ്രീകൃഷ്ണ ആട ഇതുണ്ട് അമ്പലമുണ്ട് ആടെ പോകും ആടെ പോയിട്ട് ആടെ പോയിട്ട് ആട പൂജയെല്ലാം കഴിച്ചിട്ടു ഭക്ഷണമെല്ലാം കഴിച്ചിട്ടു ഏകദേശം എല്ലാ ആട്ന്ന് മെല്ലെ തിരിച്ചു വന്നിട്ട് വരും വന്നിട്ട് മാധാടെ കദ്രി കദ്രിക്ക പോകും കദ്രി അമ്പലത്തിൽ എല്ലാം പോയിട്ട് വന്നിട്ട് ഇണ്ടാകൂ അങ്ങനെ